ഫോട്ടോഗ്രാഫിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് തൊഴിലായിട്ട് കൊണ്ട് നടക്കാൻ പറ്റിയൊരു സംഭവം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്താള് കൂടുന്ന സ്ഥലത്താണെങ്കിലും നമുക്ക് ഇപ്പോൾ ഒരു ഫോട്ടോഗ്രാഫി എടുക്കുന്ന പരിപാടി വന്നിട്ടുണ്ട് ഓക്കെ എന്തൊരു ചെറിയ പരിപാടിയാണെങ്കിലും നമുക്ക് അത് പിന്നീട് ഭാവിയിലേക്ക് ഓർത്തിരിക്കാൻ വേണ്ടി നമ്മള് ഫോട്ടോഗ്രാഫേഴ്സിനെ വിളിച്ച് ഫോട്ടോ എടുത്ത് നമ്മളത് പ്രിൻറ് ചെയ്ത് സൂക്ഷിക്കാറാണ് ചെയ്യുന്നത് നമുക്ക് ഇതൊരു തൊഴിലായിട്ട് തന്നെ കൊണ്ട് നടക്കാൻ പറ്റുന്നൊരു നല്ലൊരു കാര്യം തന്നെയാണ് കാരണം പൈസ കിട്ടുന്നൊര് കാര്യം തന്നെയാണ് ഇത് പിന്നെ കല്യാണത്തിനാണെങ്കിലും രണ്ട് ടീമുകളും ഇപ്പം ചെക്കൻ വീടും പെൺ വീടും അവരെല്ലാവരും ഇത് തന്നെ വിളിച്ചിട്ടാണ് കൊണ്ട് നടക്കുക അപ്പോൾ ഫോട്ടോഗ്രാഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കലാപരമായ ഒരു

സംഭവമാണ് ജോലിയായിട്ട് തന്നെ കൊണ്ട് നടക്കാം ഷോപ്പിട്ട് നടത്തുന്നവർക്ക് അതിലും കൂടുതല് പൈസ കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു കാര്യം തന്നെയാണ് തൊഴിലായിട്ടും കൊണ്ട് നടക്കാം ഫോട്ടോഗ്രാഫിയായിട്ടും കൊണ്ട് നടക്കാം